ഒരു മൽസ്യബന്ധനയാത്ര എന്ന് പറഞ്ഞാൽ അത് വിജയകരം ആകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ കാരണം എന്നു വച്ചാൽ മീൻ കിട്ടണേ എന്ന പ്രാർത്ഥനയിൽ ആണ് നമ്മൾ ഇറങ്ങുന്നത് കാരണം വച്ചാൽ അതിനകത്ത് അപകടം ഉണ്ട് കാരണം വച്ചാൽ കാരണം വെള്ളത്തിലാണ് ഫിഷ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഒത്തിരി അപകടങ്ങൾ തരണം ചെയ്ത് നമ്മൾ തിരിച്ചുവരുന്ന ഒരു രീതി അപ്പോഴാണ് ഒരു വിജയം ഉണ്ടാകുന്നത് പിന്നെ മീനും കിട്ടണം

അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മൾ ഇപ്പം മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നത് പിന്നെ അതിനകത്ത് മത്സ്യബന്ധനത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് വേറെയെന്താ മുദ്രാവാക്യങ്ങളോ പാട്ടുകളോ പാട്ടുകളോ ഒന്നും നമ്മൾ പാടാറില്ല പിന്നെ മൽസ്യബന്ധനം കഴിഞ്ഞ് മീനൊക്കെ കിട്ടി അതൊക്കെ വിറ്റു കാശാക്കി കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയാണ് നമ്മൾ ഈ പിന്നെ എന്നു പറഞ്ഞാൽ പാട്ടുകളൊക്ക പാടും അതിനകത്ത് മുദ്രാവാക്യങ്ങൾ എന്നു പറയണത് നമ്മളതിനകത്ത് ഒരു ഉപയോഗിക്കാറില്ല കാരണം വച്ചാൽ അതിനകത്ത് ഒരു പാർട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെയുള്ളത് പാട്ടുകൾ പാടാം ആഘോഷിക്കാം പിന്നെ നമ്മൾ കൂടെ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒന്ന് കമ്പനി കൂടി വേറെ ഒന്നും അല്ല അങ്ങാനെ അങ്ങനെയൊക്കെ ആഘോഷങ്ങളുണ്ടാകാം പിന്നെ നമുക്കിപ്പം വള്ളത്തിലായാലും ബോട്ടിലായാലും കരയിൽ നിന്നാലും ഫിഷിങ്ങ് നടത്തുമ്പോഴായാലും നമുക്കങ്ങനത്തെയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല നമ്മൾ ആ എന്ന് വച്ചാൽ സൗണ്ട് ഉണ്ടാക്കിയാൽ മീൻ ഒരു സ്ഥലത്തു നിന്ന് മാറി പോകത്തെ ഉള്ളു അപ്പോൾ ആ സമയത്ത് സംസാരിക്കാനും പറ്റത്തില്ല നമ്മൾ മിണ്ടാതെ മാറിനിന്നാണ് നമ്മൾ ഫിഷിങ്ങ് നടത്താറുള്ളത്